ഡോക്ടർ റിതുഷയല്ലേ ഗൗരിയാണ് ആ തൃശ്ശൂരുന്നാണ് വിളിക്കുന്നത് ആ ഞാനൊരു രണ്ട് മാസം മുന്നേ ഒരു പെറ്റിനെ വാങ്ങിച്ചിരുന്നു ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിച്ചിരുന്നു ആ അതിനെ ഞാൻ നന്നായിട്ട് ഗ്രൂമ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നല്ല ടൈമ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ആ പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അത് നേരാവണ്ണം ഞാനായിട്ട് മിങ്കിളാവുന്നും ഇല്ല അതേപോലെ ഫുഡൊന്നും കഴിക്കുന്നില്ല വയസ്സ് മൂന്ന് മാസം ആയിട്ടുണ്ടാവൂ അതിൻ്റെ നോർമലായിട്ടുള്ള പെറ്റ് ഫുഡ്ഡന്നെയാണ് കൊടുക്കാറ് ഏയ് അങ്ങനെയൊന്നും ഇല്ല ആ നോർമല് പെറ്റ് അതിനൊരു പാക്ക് ഒരു ബോക്സുണ്ട് ഇൻറ്റ് ഫിറ്റ് ഇൻറ്റ് ഫിഷ്ന്ന് പറഞ്ഞിട്ടൊരണ്ണം അതാണ് കൊടുക്കാറ് അതെ ആര്

ഡോക്ടറെ മരുന്നെല്ലം കൊടുത്തു അതേപോലത്തന്നെ ഫുഡിൻ്റെ പ്രശ്നാവും വിചാരിച്ചിട്ട് ഫുഡെല്ലം വെറൈറ്റി ട്രൈ ചെയ്തു നോക്കി ഇനിയിപ്പോൾ കാ ആ ഓക്കെ എന്നാൽ ഞാനെൻ്റെ പെറ്റിനൊന്ന് ഡോക്ടറെ ഡയറക്റ്റ് കാണിക്കാൻ വന്നോട്ടേ അടുത്ത മാസം ഈ മാസം തന്നെ പറ്റുവോ ഡോക്ടർ ഈ മാസത്തിൻ്റെ ആ കുഴപ്പമുണ്ടാവില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോണ്ടായിരുന്നു അപ്പോൾ പൂച്ചേനെയും കൂടെ കൂട്ടീട്ട് പോവാനാണ് അതാണ് അടുത്ത മാസം പറ്റില്ലാന്ന് പറഞ്ഞത് ഞാനെന്നാൽ ഈ മന്തിൽ എൻഡിംഗ് വന്നോട്ടേ ഓക്കെ ആ ഡോക്ടർ